എല്ലാ ആളുകളും ഒത്തുചേരുന്ന ഒരു പരിപാടീന്നെച്ചുട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവമാണ് ഞങ്ങളുടെ ഈ കവലയിൽ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടി വളരെ ആഘോഷപൂർവ്വമാണ് നടത്തുന്നത് ഒരാഴ്ച്ചയോളം നിൽക്കുന്ന നീണ്ട് നിൽക്കുന്നതായിരിക്കും ആ ഉത്സവം ഓരോ ദിവസവും ഓരോ പരിപാടി പിള്ളേരുടെ പരിപാടി അങ്ങനെ പുറത്ത്ന്ന് പരിപാടി അങ്ങനെ ഭയങ്കര കുറെ അധികം പരിപാടികൾ അപ്പം അത് കാണാൻ വേണ്ടി രാത്രി ആളുകൾ പോകുന്നതും എല്ലാം വളരെ കൗതുകപൂർവ്വം സന്തോഷപൂർവ്വം നമ്മൾ കാണുന്നതാണ് ഇതൊക്കെ അതേപോലെ ത്തന്നെ ഉത്സവത്തിൻ്റെ അവസാന ദിവസം ആന വരുന്നതും ആന വരാൻ കാത്തിരിക്കുന്നതും ആന കവലയിൽ വന്ന് നെറ്റിപ്പട്ടൊക്കായിട്ട് നിൽക്കുമ്മെ അത് കാണാൻ പോകുന്നത് വളരെ നല്ലൊരു ഓർമ്മയാണത് വളരെ നല്ലൊരു രീതിയിലാണ് നമ്മളാഘോഷിക്കുന്നതും ഓരോ വർഷവും ഉത്സവമാവാൻ വേണ്ടി നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് കൊതിച്ചിരിക്കും ആനേനെ കാണാനും പരിപാടികൾ കാണാനും വേണ്ടീട്ട് എല്ലാവരും വളരെയധികം ആഘോഷിക്കുന്നതാണത്